ആ അതെ പറയൂ

ഇല്ല

ശ്വാസംമുട്ട് ഉണ്ടോ ആ ആ ആ ഇതിനും വേറെ ആർക്കെങ്കിലും ഉണ്ടോ വീട്ടിൽ ആ എവിടെ ആ ആ ഉണ്ട് ആ അമ്മയ്ക്ക് സുഖം ആയോ ഇപ്പോൾ ഓ ഓ ആ ആ ആ ആ

ആ ആ ഉണ്ട് ഉണ്ട് ഓ ഓ ഇത് പറഞ്ഞ് കേട്ടിട്ട് വൈറൽ ഫീവർ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ആ ആ പാരസിറ്റമോള് ഗുളിക ഇപ്പോൾ അമ്മയുടെ കൈയ്യിൽ ഉണ്ടെങ്കിൽ അത് തൽക്കാലം അത് കഴിച്ചിട്ട് ഒരാഴ്ച നോക്കണം ആവിയും പിടിച്ച് ആ നമ്മളെ വീട്ടിൽ ഉള്ള തുളസി ഇലയും ഞവര ഇല ഒക്കെ ഇട്ട് പിടിച്ചാൽ മതി ആ ആവി മതി നോക്കീട്ട് കുറവ് ഇല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കണം ആ മഞ്ഞപ്പൊടി ആ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വെറുതെ പിടിച്ചാലും മതി അല്ലെങ്കിൽ തുളസി ഇലയും ഞവര ഇല ഒക്കെ ഇട്ട് പിടിച്ചാലും മതി പിന്നെ ആ പിന്നെ ബുദ്ധിമുട്ടുകൾ കുറവ് ഇല്ലെങ്കിൽ തീർച്ച ആയിട്ടും ഹോസ്പിറ്റൽ പോവണം പോയി ഡോക്ടറെ കാണണം പാരസിറ്റമോള് മൂന്ന് നേരം ഓരോന്ന് വെച്ച് കഴിക്കാം ആ പനി വലുത് ആയിട്ട് പനി ഇല്ലെങ്കിൽ ഒരു എണ്ണം കഴിച്ചാലും മതി ഉം ഉം ഉം നല്ല പനി ഉണ്ടെങ്കിൽ മാത്രം മൂന്ന് എണ്ണം മൂന്ന് നേരം മൂന്ന് എണ്ണം കഴിച്ചാൽ മതി ഉം ഉം ഉം കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ

അപ്പോൾ കുഴപ്പമുണ്ടോ കൊച്ചുങ്ങൾക്ക് ആ ആ ആ അത് ആരംഭത്തിലെ തന്നെ മരുന്ന് കൊടുക്കാം ഉണ്ടെങ്കിൽ കൈയ്യിൽ ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി കൂടാതെ നോക്കിയാൽ മതി ഉം കുഞ്ഞുങ്ങളെ ഇല്ല കൊറോണ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറയണത് ബുദ്ധിമുട്ടല്ലേ ഉം ഉം ഉം ഉം ശരി ആ അതെ അതെ ആ ആ എന്നാൽ നോക്കിയാൽ മതി വരാതെ ഉം പിന്നെ ആ ഓ ശരി ആ ഓക്കേ ഓക്കേ ശരി ഉം ആ ശരി താങ്ക് യൂ